ഹലോ ആ സാറെ സാറേ എന്ത് എന്ത് വേണം സാറെ എന്ത് ഐറ്റം ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടത്

ആ ഗോതമ്പ് പൊടി അരിപ്പൊടി

ആ ഇപ്പം പുതിയതായിട്ട് വന്ന പുതുതായിട്ട് വന്ന ഐറ്റം ഉണ്ട് ഇവിടെ ഗോതമ്പ് പൊടിയെന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനലാണ് അതായത് ഇപ്പം ഗോതമ്പ് അതായത് കഴുകി ഉണക്കി പൊടിപ്പിച്ച് പുതിയ ഐറ്റമാണ് വന്നിരിക്കുന്നത് ആ ആ ഓക്കെ ഓക്കെ എത്ര കിലോ എത്ര എത്രകിലോയാണ് സാറിന് വേണ്ടത് ഈരണ്ട് കിലോ ഈരണ്ട് കിലോ വച്ചു പിന്നെ വെജിറ്റബിൾസ് എന്തെങ്കിലും ആ പയറ് ആ ഉപ്പ് ഓക്കെ ഓക്കെ പയർ പച്ചപ്പയർ അതായത് മീറ്ററ് പയർ മീറ്റർ പയറുണ്ട് അതായത് അല്ലാതെ നാടൻ പയറുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും നാടൻ പയർ തന്നെ വേണം ഓക്കേ അതുപോലെ തന്നെ കാബേജ് വെള്ളരിക്ക അങ്ങനെയുള്ള പച്ചക്കറി ഐറ്റംസ് വേണം ഓക്കെ ഓക്കെ ഓക്കേ ഓക്കെ അതുപോലെ തന്നെ സാർ ഓക്കെ സാറിന് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വേണോ നല്ല ആപ്പിൾ ഉണ്ട് മുന്തിരിയുണ്ട് പൊമോഗ്രാമുണ്ട് ഗുവാ ഉണ്ട് ഉം എല്ലാം ഓക്കെ ഓക്കെ ഓക്കെ ആ അത്തരത്തിൽ ഓരോ കിലോ വച്ചു മതി ഒരു സാറെ ഈ ഓക്കെ നാടൻ നാടൻ ഏത്തനുണ്ട് നാടൻ ഏത്തൻ നാടൻ അത് വേണ്ടേ അപ്പം ആ ഓക്കേ നാളികേരം വേണം അല്ലേ നാളികേരം പത്തെണ്ണം വേണമല്ലേ നാളികേരത്തിൻ്റെ വില ഇപ്പോഴത്തെ അറിയാമോ എഴുപത് രൂപ ആ ആ എഴുപത് രൂപയാണ് ഒരു കിലോയ്ക്ക് ആ

ആ അപ്പം എങ്ങനെയാണ് സാറിന് ഈ സാധനങ്ങളെല്ലാം ഹോം ഹോം ഡെലിവറി ചെ തരണോ അതോ വണ്ടി വിടുമോ അത് കൊണ്ട് സാർ കൊണ്ടു പോകുന്നോ എങ്ങനെയാണ് ഐൻറ്റയാ അത് അതെല്ലാം ലിസ്റ്റ് കൊടുത്താൽ മതി ഇനി എന്തെങ്കിലും സാധനം വിട്ടു പോയിട്ടുണ്ടോ ആ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അതായത് സാധനം കയറ്റുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഒന്ന് പറയണം എന്തെന്നു വച്ചാൽ ഞങ്ങൾക്ക് കൂട്ടത്തിൽ പായ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളുമേ ഓക്കെ ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഐറ്റം സാറെ അരി ഓക്കെ ഓക്കെ സാറെ അരി കൂട്ടത്തിൽ പറഞ്ഞില്ലായിരുന്നല്ലോ സാറ് നിർമ്മൽ ഓക്കെ ഓക്കെ നിർമ്മൽ പത്ത്കിലോ വേണമല്ലേ ഓക്കേ അപ്പോൾ പച്ചരിയോ പച്ചരി ആ പച്ചരി അഞ്ച് കിലോ വേണമല്ലേ ആ അതുപോലെ തന്നെ സാറെ ഈ ബിസ്ക്കറ്റ് ഇത് പിള്ളേർക്ക് വീട്ടിൽ പിള്ളാരൊക്കെ ഉള്ളതല്ലേ ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ആ ആ ആ ആ ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റ് അത് വേണമല്ലേ ആ ഓക്കെ ബ്രഡ് വേണമല്ലേ ആ പിന്നെ ഈ ഈ ഈ ഇനി എന്തെങ്കിലും സാറ് വിട്ടു പോയിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇവിടെ നമ്മൾക്ക് ഉണ്ടല്ലോ നമ്മൾക്ക് ഇവിടെ എല്ലാം ഉണ്ടല്ലോ അതായത് ബേക്കറി ഐറ്റംസുണ്ട് ഫ്രൂട്ട്സുണ്ട് വെയ്റ്റബിൾസ് ഉണ്ട് ഗ്രോസ്സറി എല്ലാ ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാം വേണ്ടേ അപ്പം എങ്ങനെ ഇതിൻ്റെ പേമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വിട്ടാൽ മതിയോ അതോ ഇപ്പം തന്നെ അടിച്ചു വിടണോ എല്ലാം എല്ലാം എല്ലാം എല്ലാം കൊടുത്ത് വിടണം അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാറെ ഓക്കെ ഓക്കെ ഓക്കെ എല്ലാം റെഡിയാക്കി എല്ലാം എല്ലാം എല്ലാം റെഡിയാക്കി വച്ചിട്ട് സാറിനെ വിളിക്കാം ഓക്കെ